ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും വിശ്വസിക്കാതി രിക്കുക കണ്ണും പൂട്ടി നമ്മൾ ആരെയും വിശ്വസിക്കാതിരിക്കുന്നതാണ് ഞാൻ പഠിച്ച ഒരു പാഠം കാരണം വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനുള്ള പണി വേറെ എങ്ങും പോകേണ്ട ആവശ്യല്ല അവർ തന്നെ നമുക്കായിട്ട് തരും അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാതിരിക്കുക എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു അപ്പോൾ എനിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ ആ സുഹൃത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലി പോകാൻ വരെ കാരണമായിട്ടുള്ള ഒരു സുഹൃത്തായിരുന്നു അത് ഇപ്പോൾ ഞാനിവിടെ ഒരു മിൽമയിൽ ആയിരുന്നു വർക്ക് ചെയ്തു കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇവനോട് ജസ്റ്റ് താത്ക്കാലികമായിട്ടൊന്നു കയറാൻ പറഞ്ഞു പിന്നെ അവൻ അവിടുന്ന് എന്തു ചെയ്താലും ഇറങ്ങുന്നില്ല എനിക്കും സ്ഥാനം താത്ക്കാലികമായിരുന്നു പക്ഷേ അവൻ അവിടുന്ന് ഇറങ്ങുന്നില്ല അപ്പോൾ അങ്ങനെ എൻ്റെ ആ ജോലി പോവുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല